ദീർഘ ദൂര ബൈക്ക് യാത്രകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ചലഞ്ചിങ് ഓൾവേസ് നമുക്കൊരു ഒരു റിസ്ക് എലമെൻറ്റ് എലമെൻറ് എപ്പോഴാണ് ഉണ്ടാവും കാരണം അത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നേരം ഇരിക്കണം ബേസിക്കലി ഈ ലോങ്ങ ആയിട്ട് ഇരിക്കാമെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ബാഡ് ആയിട്ട് ബാധിക്കുന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഐ ടി കമ്പനികളിൽ അതുപോലുള്ളവർക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ നടുവേദന അങ്ങനത്തെ ഊരവേദന ആ ഇതൊക്കെ അനുഭവപ്പെടുന്നത് അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് ഈ ഐ ടി കമ്പനികൾ മറ്റു നടത്തിയ സർവേടൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് അവർ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ബൈക്ക് പാർക്ക് ചെയ്യുക അ ഇത്ര കിലോ ഒരു കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പം അത്ര കിലോമീറ്ററ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും ബൈക്ക് പാർക്ക് ചെയ്യും എന്നിട്ടൊന്ന് ഇറങ്ങും എന്നുള്ളൊരു തീരുമാനം നമ്മൾ തന്നെ എടുത്താൽ മതി എന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നം അവിടെ ഉള്ളൂ നമ്മൾ എന്നാൽ ഇറങ്ങുക ജെസ്റ്റ് ഒന്ന് ചായ കുടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജെസ്റ്റ് ഒന്ന് റോഡിലേക്ക് നോക്കിയിരിക്കുക ഇരിക്കുകയല്ല അവിടെ ഒന്ന് ജെസ്റ്റ് നടക്കുക കാൽ ഒക്കെയൊന്ന് ആട്ടിയിട്ട് കാലിന് ഒക്കെ ഒരു വ്യായാമമാകുന്ന രൂപത്തിലൊന്ന് നടക്കുക ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകൂ അങ്ങനെത്തന്നെ നമുക്ക് ആ ഒരു നടുവ് വേദന അങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ബേക്ക് യാത്രയിൽ നടുവ് വേദന അനുഭവപ്പെടാനുള്ള സ്വഭാവികമാണ് കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇടക്ക് ഇടക്ക് നിർത്തുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടക്ക് ഇടക്ക് നിർത്തുക എന്നിട്ട് കുറേ ബ്രേക്ക് എടുക്കുക അത് നമ്മൾ പ്ലാനിങ്ങിനെ മൊത്തത്തിൽ ബാധിക്കാം ദീർഖ യാത്രയൊക്കെ പോകുമ്പോൾ ബാധിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നടുവ് വേദന ഇതൊക്കെ നമുക്ക് ഫീല ചെയ്യാറുണ്ട് അപ്പം നമ്മൾ പരമാവധി അതിന് വേണ്ടത്തെ അവിടെ പുരട്ടാനുള്ള മരുന്നൊക്കെ എടുത്ത് കയ്യിൽ കരുതിയിട്ട് പോകുക അങ്ങനെ കംഫേർട്ടായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് യാത്രയിൽ ഭക്ഷണം ഹെവിയായിട്ട് ഒരിക്കലും കഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് ഹെവി ഫുഡ് കഴിക്കരുത് ഹെവി ഫുഡ് കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉറക്കം വരും നമ്മൾ ഈ യാത്ര ഇതുവരെ യാത്രയൊക്കെ ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിയിൽ ഉറക്കം വന്ന് കഴിഞ്ഞാൽ ജെസ്റ്റ് ഒന്നാലോചിച്ച് നോക്കുക എന്ത് വലിയ അപകടത്തെയാണ് നമ്മൾ വിളിച്ച് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത് അത്ര ചിന്തിച്ചാൽ മതി ഹെവി ഫുഡ് നമ്മൾ തീരെ കഴിക്കാതിരിക്കും പക്ഷേ യാത്ര ചെയ്യുമ്പോൾ എന്താവാ ജെസ്റ്റ് ലേറ്റ് ആയിട്ട് ഞാൻ പറയുമ്പോൾ ഒരു ബ്രെഡ് ജാം കയ്യിൽ നമ്മൾ എപ്പോഴും കരുതണം യാത്ര പോകുമ്പോൾ ബ്രെഡ് ജാം അത് നമുക്ക് ഏത് സമയത്തും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ച ആയിട്ട് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം അത്തരത്തിലുള്ള ഫുഡുകൾ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി പിന്നെ വഴിയരികിലുള്ള കടയിലൊക്കെ നിർത്തുന്ന സമയത്ത് തന്നെ ഹെവിയായിട്ടൊന്ന് ഫുഡ് കഴിക്കാതെ ലൈറ്റായിട്ട് കഴിക്കുക ഒരിക്കലും മയക്കം വരുന്ന തരത്തിലുള്ള ബിരിയാണി പോലെയുള്ള മന്തി പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് പറയാനുള്ളത് കാരണം നമ്മൾ വെറുതെ അപകടം വിളിച്ച് വരുത്തരുത് നമ്മൾ കാരണത്താൽ നമ്മളെ വിളിച്ച് വരുത്തിയ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞാൽ വലിയ റിഗ്രറ്റ് ആയിരിക്കും ഖേദമായിരിക്കും വരിക അപ്പം അത് നമ്മൾ എന്താണ്ണം ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ ബേക്ക് യാത്ര യാത്ര ഇറ്റ് ഈസ് വൈബ് അത് രസമാണ് അപ്പം ആ രീതിൽ എൻജോയ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്